ജനുവരി നാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മാർച്ച് പത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഏപ്രിൽ ഏഴ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് ഡിസംബർ അഞ്ച് രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ്